ചായ പോയി കൊടുക്കാം ഞാൻ കെ എസ് ആർ ടി സിയിൽ ഏതാണ് അ നിങ്ങൾ എവിടുന്നാണ് ആ എവിടേക്കാണ് അത്

എവിടേക്കാണ് പോവേണ്ടത് ആ ഞാൻ ആസ്പത്രിയിലേക്ക് പോവുവാണ് ഓരോ സീറ്റിൽ

അത് പ്രഷർ ഷുഗർ ഒക്കെ കൂടിയിട്ട് എന്താണ് കെ എസ് ആർ ടി സിക്ക് തന്നെ പോവുന്നത് കെ എസ് ആർ ടി സിക്ക് തന്നെ എന്താണ് പോവുന്നത്

തിരക്ക് തിരക്ക് ഉണ്ടാവില്ലേ ആ ഞാനും കെ എസ് ആർ ടി സിയിലാണ് പോവുന്നത് ഞാനും കെ എസ് ആർ ടി സിക്ക് തന്നെ പോവുന്നത്

ഇത് അതാണ് നല്ലത് ച ചായ ഞാൻ കുടിച്ചു ഇല്ല ഇതെന്തിനാ പോവുന്നത് അവിടെ ഇന്ന്

ആ ആ ആയിക്കോട്ടെ എന്നാൽ ശരി